വീട്ടിൽ പാചകം ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സിലിണ്ടർ വഴിയാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടറ് ഉപയോഗിച്ചാണ് നമ്മൾ ആഹാരം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഗ്യാസ് സിലിണ്ടറ് സുരക്ഷിത കാരണങ്ങളാൽ വീടിന് വെളിയിൽ ഈ കുറ്റി സൂക്ഷിക്കുന്നതാണ് നല്ലത് പിന്നെ ഭൂരിഭാഗം വീട്ടുകളും അടുക്കളയ്ക്കകത്ത് തന്നെയാണ് സിലിണ്ടറ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിനകത്തിപ്പം പൈപ്പുകൾ യഥാ സമയം മാറ്റി സ്ഥാപിക്കുക റെഗുലേറ്റർ ചെക്ക് ചെയ്യുക നമ്മുടെ അടുപ്പിൻ്റെ ആ ആ തീകത്തുന്ന ഭാഗം അത് വല്ലതും കയറിയൊക്കൊ അടഞ്ഞൊക്കെ ഇരിക്കുകയാണോ എന്നുള്ളത് പിരീയോഡിക്കൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് എപ്പോഴും നല്ലതാണ് പിന്നെ ഈ ഗ്യാസ് നമ്മൾ എന്നാ കത്തിക്കുന്നതിന് മുമ്പ് വീട്ടിലെ ജനലുകൾ പ്രത്യേകിച്ച് അടുക്കളയിലെ ജനലുകൾ തുറന്നിടുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും ഗ്യാസുണ്ടെങ്കിൽ അത് പെട്ടന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ഒരുക്കിക്കൊടുക്കുന്നു പിന്നെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ പൈപ്പ്ലൈനിൽ കൂടെ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്നു വച്ചാൽ എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്വൻ്റി ഫോർ സെവൻ അവിടെ ഗ്യാസുണ്ട് അപ്പം നമ്മൾ അതെല്ലാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായ രീതിയിൽ അത് ഓഫ് ചെയ്ത് വെക്കാൻ നമ്മൾ വളരെ ശ്രദ്ദിക്കേണ്ടതാണ് മിക്കവാറും വീടുകളിലുള്ള അപകടം ഉണ്ടാകുന്നത് വീട്ടമ്മമാർ പലപ്പോഴും വെള്ളം ചൂടാക്കാനോ ഒക്കെ ഈ സ്റ്റൗവ്വിൽ വച്ച് ഗ്യാസ് കത്തിച്ചിട്ടിട്ട് പിന്നെ അവർ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ട് ഇത് ഓഫ് ചെയ്യാൻ മറന്ന് പോവുകയും ഇത് വെള്ളമെല്ലാം തിളച്ച് തൂകി പാത്രവും കത്തി വരുമ്പോഴത്തേക്കും ഈ വെള്ളം തിളച്ച് തൂകിയ ഈ അടുപ്പ് കെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അവിടെ ഗ്യാസ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അത് വളരെ അപകടമായ ഒരു രീതിയാണ് അതൊരു അതിനായിട്ട് അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെൽ വെൻ്റിലേറ്റഡ് ആക്കുക അടുക്കളയും പരിസരവും ഈ അധികമായിട്ട് നമ്മുടെ ആ മുറികളിൽ ഇരിക്കുന്ന ഗ്യാസ് പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുക അതിന് ശേഷം നല്ല ക്ലീനിങ്ങ് കാര്യങ്ങളെല്ലം നടത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഗ്യാസ് സിലിണ്ടർ വീണ്ടും ഉപയോഗിച്ച് സ്റ്റൗവ് കത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മെയിനായിട്ട് ഇതിന് പറയേണ്ടത് നമ്മൾ അതിൻ്റെ ഈ അടുപ്പ് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക അതുപോലെതന്നെ ഇതിൻ്റെ നോബുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അത് ഓണും ഓഫും ശരിയായ രീതിയിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ ഇതിൻ്റെ പൈപ്പ് കാലപ്പഴക്കം ചെല്ലുമ്പോൾ മാറുക പിന്നെ ഇത് നമ്മൾ ജോയൻ്റ് ചെയ്ത് ചെയ്യുന്ന ഭാഗം അതിൻ്റെ ക്ലിപ്പുകൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ റെഗുലേറ്ററ് അത് കറക്റ്റായിട്ട് ഈ സിലിണ്ടറിൽ സീറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ മുകളിൽ വെക്കുന്ന റെഗുലേറ്ററിനെന്തെങ്കിലും കമ്പ്ലേൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഏജൻസിക്കാരെ വിവരം പറഞ്ഞ് അല്ലെങ്കിൽ അവിട ഈ റെഗുലേറ്ററുമായിട്ട് ചെന്ന് റെഗുലേറ്ററിന് തകരാറുണ്ടെങ്കിൽ അത് മാറ്റി മേടിക്കേണ്ടതാണ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ എൽ പി ജി സിലിണ്ടർ ഗ്യാസ് നമ്മളുപയോഗിക്കുമ്പോൾ